ഇന്ത്യന് ആരോഗ്യമേഖലയിൽ നമുക്ക് പറയാനാണെങ്കിൽ നല്ലതും ഉണ്ട് അതുമാതിരി സംവിധാനങ്ങളില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള നിറയെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഏയ്മ്സ് പോലുള്ള വല്യ വല്യ എന്നാണ് ആരോഗ്യ സംഘടനകൾ ആരോഗ്യ സംഘടന ഒത്തിരി എന്നാണ് രോഗികള്ക്ക് വേണ്ടി നിറയെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പൈസ കുറച്ചൊക്കെ മരുന്ന് കൊടുക്കുന്ന പദ്ധതിയൊക്കെ ഇറക്കിയിട്ടുണ്ട് അതു മാത്രമല്ല അംഗനവാടികളിൽ ഈ ശിശുക്കളായിട്ടുള്ള കുട്ടികള്ക്ക് എന്നാണ് ആരോഗ്യം കാത്ത് സൂക്ഷിക്കാനായിട്ടുള്ള മരുന്നുകൾ പിന്നെ പല പദ്ധതികൾ അവര്ക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ എല്ലാം നല്കുന്ന കുറേ പദ്ധതികൾ അംഗനവാടികളില് നിന്ന് ഉണ്ടാവാറുണ്ട് അതൊന്ന് പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്നാണ് ആരോഗ്യമേഖല ഇപ്പം നമ്മുടെ താഴോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മണ്ടയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ അപ്പം പോയി കഴിഞ്ഞാലിപ്പം മണിപ്പൂര് അല്ലെങ്കിൽ ഡല്ഹി അതും ഡല്ഹിയിലൊക്കെ ഉള്സ്ഥലങ്ങളിൽ ബോംബെ ബോംബെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ ആരോഗ്യമേഖല വളരെ മോശമാണ് അവിടെ നമ്മൾ ആശുപത്രികള്ക്കൊക്കെ ആവിശ്യമായ സാധനങ്ങളൊന്നും കിട്ടാറില്ല ഉത്പന്നങ്ങളൊന്നും കിട്ടാറില്ല അവിടെ വേണ്ട യന്ത്രങ്ങളൊന്നും കിട്ടാറില്ല പല ആശുപത്രികളിലും ഡോക്ടര്മാരില്ല നേഴ്സ്മാരില്ലാതെ വരുന്നതുണ്ട് ആശുപത്രിക്കിപ്പം എന്തെങ്കിലുമൊരു എന്നാണ് ഓപ്രേഷന് നടത്താനാണെങ്കിൽ പോലും അവിടെ വേണ്ടിയ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല അപ്പം ഒരു ആരോഗ്യമേഖലയിൽ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും മറ്റും ആരോഗ്യമേഖലയിൽ വേണ്ട സംവിധനങ്ങളൊന്നും നമ്മുടെ ഇന്ത്യന് ആരോഗ്യയിൽ ആരോഗ്യമേഖലയിൽ ഇല്ല അതാണ് ശരിക്കുമുള്ള സത്യാവസ്ഥ ആദ്യം നമ്മുടെ സര്ക്കാർ അത് നമുക്ക് ലഭിക്കണമെന്ന് ലഭിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാന് പറ്റത്തുള്ളൂ മനുഷ്യന്റെ സ്ഥാനത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനതയുടെ ഭാഗത്തുനിന്ന് പറയാന് പറ്റുന്ന നമുക്ക് അതിനു വേണ്ടി പറയുക എന്ന് മാത്രമാണ് നമ്മളെക്കൊണ്ട് കഴിയുക അല്ലാതെ വേറൊന്നും നമുക്ക് പറയാന് പറ്റത്തില്ല അപ്പം ഇന്ത്യന് ആരോഗ്യമേഖല ഒന്നുകൂടെ വികസിപ്പിച്ചാല് കൊള്ളാം എന്നുണ്ട്